പത്രങ്ങളിൽ റേഡിയോയിലോ വീട്ടമ്മമാർക്കായി പ്രത്യേക വിഭാഗം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സ്ത്രികളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ മാത്രമായി എന്തെങ്കിലും പരിപാടികളോ മാസികകളോ കോളങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേണം കാരണം ഇപ്പോൾ ആ അമൃത ടീ വിയിൽ സ്ത്രീ അതുപോലെ ഏഷ്യാനെറ്റിൽ സ്ത്രീശാക്തീകരണം പിന്നെ അതുപോലെ വനിതാരത്നം വെറുതെ അല്ല ഭാര്യ എൻ്റെ അമ്മ സൂപ്പറാണ് പിന്നെ കുട്ടികൾക്കായിട്ട് ഇങ്ങനെ വേറെ പരിപാടികളൊക്കെ ഓരോ ചാനലുകൾ ഉണ്ട് അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവുന്നത് പറഞ്ഞാൽ അമ്മമാരുടേയും കുട്ടികളുടെയായാലും അവരുടെ കഴിവുകൾ പുറംലോകം അറിയാനും അവർക്ക് സമൂഹത്തിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാനും ഒരു വേദി ഒരുക്കുക എന്നുപറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇനിയും അതുപോലുള്ള പരിപാടികളൊക്കെ ചാനലുകളിലായാലും മറ്റുള്ളതിലുകളിൽ ആയാലും ഒക്കെ വേണം അത് എന്താണ് വെച്ചാൽ നമ്മളിലെ കഴിവുകളെല്ലാം അടിച്ചമർത്തി നമ്മളൊരു വീട്ടിൽ വീട്ടമ്മമാരായി ഒതുങ്ങി നിൽക്കുന്നതിനേക്കാട്ടിയും എത്രയോ നല്ലതാണ് നമ്മുടെ കഴിവുകൾ പുറംലോകം അറിയുന്നതും നമുക്ക് ഇനി ഇങ്ങനെയൊരു വേദി കിട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ അവരുടെ മനസ്സിൻ്റെ സന്തോഷങ്ങളും അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചാനലുകളിലായാലും റേഡിയോയിലായാലും നമുക്ക് നമ്മളുടെ കഴിവുകൾ തെളിയിക്കാൻ അതിനൊരു വേദിയും ഒരു അവസരവും ഉണ്ടാവുന്നതും അതുപോലെ കുട്ടികളിലെ കഴിവുകൾ അത് പരിപോഷിച്ച് കൊണ്ടുവരാനും പിന്നെ അത് അതും ഇതുപോലെത്തന്നെ ചാനലുകളിൽ ആയാലും റേഡിയോയിൽ ആയാലും അവർക്ക് ആയാലും അതിന് ഒരു വേദി ഒരുക്കി തരുന്നതിനും നല്ലൊരു പങ്ക് ഈ ചാനലുകളിൽ ആയാലും റേഡിയോയിൽ ആയാലും ഉണ്ടാവണം എന്ന് ആണ് എൻ്റെ അഭിപ്രായം